നമ്മുടെ സംസ്ക്കാരത്തിൽ എന്ന് പറയുമ്പോൾ കരകൗശല വസ്തുക്കളായിട്ടെന്ന് പറയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യുന്ന സാധാരണ കേരളം എന്ന് പറയുമ്പോൾ കേരളം എന്ന് പറയുമ്പോൾത്തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് തെങ്ങ് തേങ്ങ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ തേങ്ങ വച്ചിട്ട് ഓരോ തേങ്ങയും അതു ഇതൊക്കെ വച്ചിട്ട് നമ്മളോരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിട്ട് കാണാറുണ്ട് കുരങ്ങൻ്റെ രൂപത്തിലുള്ളതൊക്കെ കരകൗശല വസ്തുക്കളായിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ വസ്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ കേരളത്തിൽ പൊതുവേ ആണുങ്ങളാണെങ്കിൽ ഷർട്ടും മുണ്ടുമാണ് യൂസ് ചെയ്യുന്നത് കൂടുതലാൾക്കാരും അങ്ങനെ തന്നെയാണ് മുണ്ടാണ് നമ്മുടെ ഇവിടുത്തെ മെയിനായിട്ടുള്ള ഒരു വസ്ത്രമായിട്ട് നമ്മൾ കാണുന്നത് പിന്നെ സ്ത്രീകളാണെങ്കിൽ സാരി പോലുള്ളവയാണ് കൂടുതലായിട്ടവർ യൂസ് ചെയ്യുന്നത് പിന്നെ പ്രായമായവരാണെങ്കിൽ സെറ്റും മുണ്ടും അല്ലെങ്കിൽ അങ്ങനെയുള്ള യൂസ് ഫുള്ളായിട്ടുള്ള സാധനങ്ങളാണ് അവർ യൂസ് ചെയ്യുന്നത് കാരണം നമുക്ക് ഇവിടെയെന്ന് പറയുമ്പം അങ്ങനെയാണ് കണ്ടുവരുന്നത് പിന്നെ സംസ്ക്കാരത്തിന് എന്താ പറയുക ഓരോരുത്തർക്കും ഓരോ സംസ്ക്കാരമാണെങ്കിൽ നമുക്ക് കേരളത്തിൽ പൊതുവേ സംസ്ക്കാരം എല്ലാവർക്കും ഒരുപോലെത്തന്നെയാണ് വ്യത്യസ്ത ജാതിയിലുള്ളവർക്ക് വിത്യസ്ത തരത്തിലുള്ള ഇതാണ് നമ്മൾ കണ്ടുവന്നിരിക്കുന്നത് അതായത് ഹിന്ദുക്കൾക്കൊരു രീതി ക്രിസ്ത്യാനികൾക്ക് വേറൊരു രീതി മുസ്ലീമുകൾക്കു വേറൊരു രീതി അങ്ങനെ മൂന്ന് തരത്തിലാണ് ഇവിടെ ആൾക്കാർ പൊതുവേ അവരുടെ സംസ്ക്കാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുപോലെയാണ് ഇപ്പം ഞാൻ കണ്ടുവരുന്നത്